അ ഞാനൊരു ഒർഡർ നല്കിയിട്ടുണ്ടായിരുന്നു ആ അ അതെ അതെ അതെയതെ അപ്പോൾ അതെന്താന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഞാന് ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ട് അതായത് ക്യാഷ് അയച്ചു ഗൂഗിൾ പേ വഴിയാണ് അയച്ചത് നോക്കുമ്പോൾ എന്താന്നു വച്ചിട്ടുണ്ടെങ്കില് ആ അതെ അതെ അപ്പോൾ ഗൂഗിൾ ഫോൺ ഫെയ്ലിയർ ഫോൺ പേ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പം ഗൂഗിൾ പേ വഴിയാണ് അയച്ചത് അപ്പം നോക്കുമ്പം യു പി പിന്ന് തെറ്റിപോയത് കൊണ്ട് അത് പിന്നെ യു പി പിന്ന് ഒന്ന് കൂടെ റീസെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വന്നു അപ്പോൾ ഞാനിത് അടിച്ചിട്ട് റെഡി ആകുന്നില്ല അപ്പം ഒരു ക്യാഷ് ഞാനൊരു പത്തു മിനിറ്റിനു ശേഷം ഇട്ടാൽ മതിയോ ആ അങ്ങ് അതെന്താന്നു വച്ചിട്ടുണ്ടെങ്കില് എന്റെ സിമ്മ് കട്ട് ആയാണ് ഇരിക്കുന്നത് അപ്പം ഓ ടി പി മെസ്സേജ് വരണമെങ്കില് റീചാർജ് ചെയ്യണം അപ്പം റീചാർജ് ചെയ്യണം ഹസ്ബൻഡ് വരണം ആ അപ്പം അതുണ്ടായിരുന്നു ആ അതെയതെ ആ ഓക്കെ എന്നാൽ അങ്ങനെ ചെയ്താൽ പോരെ ആ ഓക്കെ സർ ഓക്കെ താങ്ക് യു